ഹലോ സ്റ്റേറ്റ് ബാങ്ക് ആണോ ഗുഡ് അത് ഞാന് ഇവിടെ മേലൂരിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്ക് കുറച്ച് ഗോൾഡ് വെച്ചിട്ട് ലോൺ എടുക്കണമായിരുന്നു അതിനെ സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഓക്കെ സാർ എന്തെങ്കിലും കൊണ്ടുവരണോ നമ്മള് വരുമ്പം ആ അവിടെ അക്കൗണ്ട് ഉള്ളതാണ് ആഹാ ഓക്കെ ഓക്കെ എപ്പഴാണ് വരണ്ടത് സമയം ഒന്ന് പറയുവോ മേഡം ആ ഓക്കെ ഓക്കെ അപ്പോൾ ഞാന് ഒരു പതിനൊന്നര ഒക്കെ ആകുമ്പോളത്തേക്കും വന്നാൽ മതിയോ ഓക്കെ മാം ബ്രാഞ്ച് എവിടെയായിരുന്നു കറക്റ്റായിട്ട് അറിയത്തില്ല അ ഓക്കെ ഓക്കെ ഓക്കെ ബൈ